ഉച്ച ഊണിന് നമ്മൾ പൊതുവായിട്ട് ചോറും മീൻ കറിയും കിഴങ്ങും തോരനും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ചോറ് ഇവിടെയാണെങ്കിൽ ചോറ് തന്നെയാണ് എല്ലാവരും ഉച്ചക്ക് കഴിക്കുന്നത് പിന്നെ മീന് നിർബന്ധമാണ് മീന് ഏത് മീനായാലും മീൻ ഉണ്ടെങ്കിൽ ഒരു കറിയാണ് മീൻ കറി ഇല്ലെങ്കിൽ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് മീൻ ഉച്ച ഊണിന് മസ്റ്റാണ് അതുപോലെ ഇറച്ചി ഉണ്ടെങ്കിൽ അത് വെക്കും പിന്നെ ചക്ക ഉണ്ടെങ്കിൽ അതു വെക്കും അവിയല് വെജിറ്റബിൾസ് പച്ചക്കറികൾ കൊണ്ടുള്ള കറികളൊക്കെ വെക്കാറുണ്ട് തോരൻ വെക്കും പിന്നെ ഉച്ചക്ക് രസം അല്ലെങ്കിൽ ഒരു ഒഴിച്ചുകൂട്ടാൻ നിർബന്ധമാണ് പിന്നെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ പതിവായിട്ട് വെക്കാറുണ്ട് അപ്പോൾ ഉച്ചക്ക് എടുക്കും രാവിലെ കാപ്പിക്കും എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ രാത്രി രാത്രിയും കാപ്പിയൊന്നും ഉണ്ടാക്കാറില്ല ചോറ് തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ചില ദിവസം മാത്രം ചപ്പാത്തിയോ ഗോതമ്പ് പുട്ടോ ഓട്സ് കൊണ്ടുള്ള പുട്ടോ ഒക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഓട്സ് ചില ദിവസം പുട്ട് അവിക്കും ചില ദിവസം കാച്ചിയാണ് എടുക്കുന്നത് ഓട്സ് പുട്ട് അവിച്ചാൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് മോനും കഴിക്കും അവന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഓട്സ് പുട്ട് പിന്നെ ചില ബാക്കി വല്ല മിക്ക ദിവസവും അത്താഴത്തിന് ചോറ് തന്നെയാണ് കഴിക്കുന്നത് ചില ദിവസം മാത്രമേ കാപ്പി ഉണ്ടാകാറുള്ളൂ എന്തെങ്കിലും രാത്രി പിന്നെ ചേട്ടന് എന്തായാലും എല്ലാവർക്കും ചോറ് തന്നെ ആണ് അത് എല്ലാവരും നല്ലവണ്ണം ചോറ് ഉച്ചക്ക് നന്നായിട്ട് കഴിക്കും കറികളും ഒക്കെ മൂന്നു നാല് കറിയൊക്കെ ഉച്ചക്ക് ഉണ്ടാക്കാറുണ്ട് പിന്നെ മീൻ പൊരിച്ചത് ചില ദിവസം ചിക്കനൊക്കെ ഉച്ച ഉച്ചഭക്ഷണത്തിന് വാങ്ങാ വാങ്ങി വീട്ടി വാങ്ങിവെക്കാറാണ് പതിവ് അല്ലാതെ കറി പുറത്തുനിന്നങ്ങനെ വാങ്ങാറില്ല ചിക്കൻ വാങ്ങി വീട്ടിൽ തന്നെ പാചകം ചെയ്ത് പൊരിച്ചോ കറി വെച്ചൊക്കെ കഴിക്കാറാണ് പതിവ് പുറത്തു നിന്നുള്ള ആഹാരം വളരെ കുറവാണ്